ഹലോ ഞാൻ വിളിച്ചത് എൻ്റെ വീട്ടില് കറണ്ട് ബില്ല് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം സാധാരണ വരുന്നതിനേക്കാളും വളരെ ഇരട്ടി തുകയായിട്ടുണ്ട് ഈ മാസം അപ്പം അത് നമ്മുടെ മീറ്ററിനെന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതേ ആ മീറ്ററിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കുമോ അങ്ങനെ വരുന്നത് ഓ വേറെ പല പല കാരണങ്ങളുണ്ടല്ലേ ഓക്കേ ഈ കറൻറ്റ് ബില്ല് കുറയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുവോ സാറേ ആവശ്യമില്ലാത്ത നേരത്ത് കരണ്ടുപയോഗിക്കുന്ന കുറച്ചാൽ മതിയല്ലേ ആ ഓക്കെ ശരി എന്നാൽ